ഞാൻ മൊബൈലിൽ വാർത്ത ഫീഡുകൾ സ്ഥിരമായി വായിക്കാറുണ്ട് കാരണം എന്നു വച്ചാൽ വാർത്ത അറിയുക എന്നത് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷികമായ കാര്യം തന്നെയാണ് കാരണം വാർത്തകളില്ലാതെ നമുക്ക് ഇപ്പം ജീവിക്കാൻ പറ്റില്ല പ്രധാനമായും നമ്മൾ മലയാളത്തിൽ വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് കാണുന്ന ചാനലുകളെന്ന് പറഞ്ഞാൽ മനോരമ ന്യൂസ് ഉണ്ട് മാതൃഭൂമി ജനം ടിവി പിന്നെ ഏഷ്യാനറ്റ് ന്യൂസ് റിപ്പോർട്ടർ ചാനല് ട്വൻറ്റി ഫോർ ന്യൂസ് പിന്നെ ന്യൂസ് ട്വൻറ്റി മലയാളം ന്യൂസ് ട്വൻറ്റി ഫോർ മലയാളം പിന്നെ കൗമുദി ടിവി കൈരളി ന്യൂസ് രാജ് ന്യൂസ് മലയാളം തുടങ്ങി എല്ലാ മലയാളം ചാനലുകളും വാർത്ത അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പ്രധാനം അതിൽ തന്നെ പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്നത് ഏഷ്യാനറ്റ് മാതൃഫൂമി മനോരമ ഈ ചാനലുകളാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നിരുന്നാലും എല്ലാ ചാനലുകളുടെയും വാർത്ത ശ്രദ്ധിക്കാറുണ്ടെങ്കിലും കൂടുതലായിട്ടും ഈ മൂന്നോ നാലോ ചാനലുകളുടെ വാർത്തകളാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളം വാർത്തയിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാർത്തകളുടെ വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നത് ഈ മൂന്ന് ചാനൽ വഴിയാണ് ഏഷ്യനെറ്റിലാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ വാർത്തകളും വിവരങ്ങളും നമ്മുടെ മുമ്പിലേക്ക് എത്തുക മനോരമ ആകട്ടെ കൂടുതൽ കുറച്ചു കൂടെ നാട്ടിലെ വാർത്തകളുമായിട്ട് കവറേജ് കുറേ കൂടുതൽ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മനോരമേ മാതൃഭൂമിയും മാതൃഭൂമി കൂടുതൽ കേരളത്തിൽ തന്നെ മലബാർ മേഖലകളിലെ വാർത്തകളാണ് കൂടുതലായിട്ടും മാതൃഭൂമിയിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുക മധ്യ കേരളത്തിലെയും പിന്നെ കൂടാതെ നമ്മുടെ തെക്കൻ കേരളത്തിലെ വാർത്തകൾ നമുക്ക് അറിയാൻ വേണ്ടി എപ്പോഴും പെട്ടെന്ന് വാർത്ത കിട്ടുന്നത് കൂടുതലും മലയാള മനോരമയാണ് മലയാള മനോരമയിലെ ഭാഷ എനിക്ക് കുറച്ചു കൂടെ ആകർഷകമായി തോന്നിയിട്ടുണ്ട് അവർ ഉപയോഗിക്കുന്ന ഭാഷയാണെങ്കിൽ തന്നെ കുറച്ചു കൂടെ വളരെ ആകർഷകമായിട്ടാണ് എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുള്ളത് പിന്നെ ബാക്കി ചാനലുകളല്ല ബാക്കി വാർത്ത വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ചാനലുകൾ എല്ലാം തന്നെ അത്ര കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ വരുന്ന വാർത്തകളുടെ ഒരു അനുകരണമോ അല്ലെങ്കിൽ ഇവിടെ നിന്നെടുത്ത വാർത്തകളാണ് കൂടുതലും അവർ കാണിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ഈ മൂന്നോ നാലോ വാർത്ത ചാനലുകളാണ് വാർത്താ ചാനലുകൾ പിന്നെ മറ്റ് ചാനലുകൾ അപേക്ഷിച്ചു ഇപ്പോൾ റേറ്റ് നിരക്ക് കൂടുതൽ ആ ണെങ്കിലും മുടക്കുന്ന നിരക്കിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകർഷണീയത നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും നമ്മളെ ഇത്തരം ചാനലുകളെ പ്രധാനമായിട്ടും നമ്മളെ ആശ്രയിച്ചു വരുന്നത് ഇനി മുമ്പോട്ടും ഈ ചാനലുകളിൽ തന്നെ നല്ല ഒരു ചാനല് വരുന്ന ഇടം വരെ ഈ ചാനലുകളിൽ തന്നെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്